എനിക്കൊരു ബൈക്ക് ഉണ്ട് ആ ബൈക്ക് വെച്ചിട്ടാണ് ഞാൻ ഓഫ്റോഡ് പോയിട്ടുള്ളത് ഒരു മലകയറാൻ ആയിട്ട് ഞാൻ പോയിട്ടുള്ളത് പക്ഷേ അവിടെ പോയിക്കഴിഞ്ഞപ്പോഴാണ് ഇത് കുറച്ച് അപകടകരമായ യാത്രയാണെന്ന് എനിക്ക് മനസ്സിലായത് കാരണം ഫുള്ള് കല്ലെല്ലാം പൊങ്ങി മഴ പെയ്തു വലിയ വെള്ളച്ചാല് പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെയാണ് ഞങ്ങൾ ബൈക്കോടിച്ചു കേറ്റുന്നുണ്ടായിരുന്നത് അതൊരു സാഹസികമായിട്ടുള്ള യാത്രയാണ് അത് മറികടക്കുക എന്ന് പറഞ്ഞ കുറച്ച് ദുസ്സഹനീയമായ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാലും നമ്മള് നമ്മടെ ഒരു ധൈര്യപൂർവ്വം വെച്ചിട്ട് അങ്ങ് കയറി ഒന്നു രണ്ട് വിട്ടം ഒന്നു രണ്ടുവട്ടം നമ്മൾ അവിടെ മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ചിലവരുടെ വണ്ടികള് മറിയുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഭയങ്കര മഴയത്താണ് നമ്മൾ പോയിട്ടുള്ളത് പക്ഷേ ഒരു രസമായിരുന്നു ആ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും കൂടെ വണ്ടി തള്ളലും ആ ചെളിയിൽ വീഴലും ഇതൊക്കെ ഒരു രസമായിരുന്നു വണ്ടി കുറച്ച് നാശമായെങ്കിലും ഒരു യാത്രക്കൊരു നല്ലൊരു അനുഭവം ഉണ്ടായത് അങ്ങനെയാണ് ആ മലകയറ്റത്തിലാണ് പക്ഷേ നല്ല രസമായിരുന്നു വണ്ടി കേറ്റി കൊണ്ടുപോകാന് അപ്പൊരു ആദ്യമൊക്കെ ഒരു പേടിയുണ്ടായിരുന്നെങ്കിലും പിന്നീട് വലിയ പേടി ഒന്നും ഉണ്ടായിട്ടില്ല കാരണം നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനും നമുക്കൊരു പെർഫെക്ഷൻ ആയിട്ട് ഓടിക്കാൻ ഒക്കെ പറ്റിയത് ഒരു നമ്മളോരോ മലേന്റെ മുകളിലൊക്കെ കേറിയപ്പോഴായിരുന്നു എന്തുകൊണ്ടും കൊള്ളായിരുന്നു നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് മാറിയത് എന്റെ പേടിയൊക്കെ അങ്ങനെ മാറി ഞാൻ എല്ലാ ഓഫ്റോഡുകളിലും പങ്കെടുക്കാനും തുടങ്ങി